ഞാൻ പല തരം സിൻമകൾ കാണാറുണ്ട് പല ജോണറിലുള്ള സിൻമകൾ എനിക്കിഷ്ടമാണ് കാണാൻ ഞാൻ പ്രത്യേകിച്ചും കാണുന്നത് ഫിഷ്ഷൻ മൂവീസ് റൊമാൻടിക് മൂവീസ് അല്ലെങ്കിൽ സം ഡോക്ക്മെൻട്രീസും ഞാൻ കാണാറുണ്ട് അതൊക്കെ എന്നെ വളരെ അട്രാക്ട് ചെയ്തിട്ടുള്ളു ഇപ്പോൾ ഞാൻ റീസെൻടായിട്ട് കാണുന്നത് സർവൈവൽ മൂവീസ് അല്ലെങ്കിൽ ത്രില്ലർ മൂവീസ്സാണ് നമ്മൾ ഒരു സാഹചര്യത്തിൽ പെട്ടു കഴിഞ്ഞാൽ നമ്മൾ അതിനെ എങ്ങനെ സർവൈ ചെയ്യാമെന്നാണ് ആ മൂവീസിൽ പറയുന്നത് അതുപോലെ തന്നെ ഫിഷ്ഷൻ മൂവീസ്ലക്കെ കണ്ട് കഴിയുമ്പോൾ എൻ്റെ ഇമാജിനേഷൻ ലെവലെനിക്ക് ഭയങ്കരായിട്ട് വർധിക്കുന്നതായിട്ട് തോന്നാറുണ്ട് ഞാൻ റീസെനായിട്ട് കണ്ട കുറച്ചാനിമേറ്റഡ് ഫിക്ഷൻ മൂവീസ് എതെക്കെയാന്ന്ച്ച് കഴിഞ്ഞാൽ മുവാന ടാങ്കിൾട് ഫ്രോസൻ എന്നിവയക്കെയാണ് ഇതിലെല്ലാം കുട്ടികളിലെ സർവൈവലും അവരവരുടെ ഡ്രീം അവരെ ലക്ഷ്യത്തിലേക്കെത്തുന്ന കഥകളുമാണ് പറയുന്നത് ഈ കഥകളെല്ലാമെനിക്ക് വളരെ ആശ്ചര്യപ്പെടുത്തീട്ടാണുള്ളത് ഞാൻ റീസെൻടായിട്ട് കണ്ടൊരു കഥയാണ് ടാങ്കിൾ എന്ന് പറയുന്ന കഥ ആ കഥയിൽ നായികയായ കുട്ടിയെ ഒരു വിച്ച് കടത്തിക്കൊണ്ടു പോകുകയും അത് ആ കുട്ടീന്ന് പറഞ്ഞ ഒരു കിങ് ആൻ ക്വീൻ്റെ ഒരു കിങ്ഡത്തിൻ്റെ തന്നെ പ്രിൻസസായിരുന്നു ആ കുട്ടിയെ കണ്ടു പിടിക്കാതെ ഇരുപത് വർഷത്തോളം അതിനുള്ള തിരച്ചിലും ആ കുട്ടിയുമായിട്ട് കണക്ഷനാവുന്ന ഒരു കള്ളനുമാണ് ആ കഥയിലെ പ്രത്യേകത ഇവർ രണ്ട് പേരും തരണം ചെയ്യുന്ന കാര്യങ്ങളും അവസാനം കാണാതെ പോയി തന്നെ കുട്ടിയെ കണ്ടെത്തുന്ന കിങ് ആൻ ക്വീൻ ഒക്കെയാണ് ഈ കഥയിലെ ഏറ്റോം വലിയ വളരെ പ്രിയപ്പെട്ടവരായി തീർക്കുന്ന കാര്യങ്ങൾ അതുകൂടാതെ ഞാൻ കണ്ടിരിക്കുന്നത് വെബ് സീരിസാണ് പല പല ഷോർട്ട് ആൻഡ് ലാർജ് വെബ് സീരീസായ മണീ ഹേസ്റ്റ് മണീ ഹേസ്റ്റ് ഡെഡ്ഡ് ബോഡി ടിറ്റീവ്സ് ഇതക്കെ എനിക്ക് വളരെ രസകരമായി തോന്നാറുണ്ട് നമ്മുടെ പുതിയ ഇമാജിനേഷൻ ലെവൽ വർധിക്കുവാനും പുതിയ പുതിയ കഥകളെ ക്കുറിച്ച് നമുക്ക് കാണാനും കേൾക്കാനും സാധിക്കുന്നതു കൊണ്ട് ഇങ്ങനത്തെ മൂവീസ് കാണാനെനിക്ക് വളരെ ഇഷ്ടമാണ്